അതായത് ഓരോ ചെടിക്കും ഓരോ രീതിയിലുള്ള വളർച്ചയാണ് അപ്പം അതായത് മഴ കൂടുതൽ ചെടികളും മഴക്കാലത്താണ് നമ്മൾ നടുന്നത് ഇപ്പം മഴക്കാലത്ത് നട്ടിട്ടുണ്ടെങ്കിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമ്മൾ വെള്ളമൊന്നും നനച്ച് കൊടുക്കണ്ട പിന്നെ എന്താച്ചാൽ മണ്ണിനൊരു മയമുണ്ടാവും അപ്പോൾ ചെടീൻ്റെ വേരുകൾക്ക് ഇറങ്ങാനും നല്ല സുഖമായിരിക്കും പിന്നെ അതായത് മഴയത്തീന്നന്നെ അവർക്ക് ആവശ്യമുള്ള വെള്ളവും കിട്ടും അങ്ങനുള്ളൊരു ഉപകാരമൊക്കെ ഉണ്ട് പിന്നെ ചെടീനെ നമ്മളിങ്ങനെ ഒക്കെ സംരക്ഷിക്കേണ്ടതെന്നു വെച്ചാൽ ചില ചെടികൾക്ക് വെയിൽ വേണ്ടിവരും അതായത് ഓവ വെയിൽ പറ്റില്ല എന്നാൽ അത്യാവശ്യം വെയിൽ വേണം എല്ലാ ചെടികൾക്കും സൂര്യ പ്രകാശം തട്ടണം പിന്നെ അതുപോലെ നമ്മൾ നല്ലോണം വെള്ളമൊഴിച്ച് കൊടുക്കണം പിന്നെ അതിൻ്റെ ചുറ്റിലും വളരുന്ന അതായത് പുല്ലൊക്കെയുണ്ടാവില്ലേ അതൊക്കെ പറിച്ച് എപ്പോഴും ക്ളീൻ ചെയ്തുകൊടുക്കണം മണ്ണ് ഡ്രൈ ആവുന്നുണ്ടോ നോക്കണം അതായത് ഇടയ്ക്കിടക്ക് ഡ്രൈ ആവുന്നുണ്ടോ നോക്കണം ഡ്രൈ ആയിട്ടുണ്ടേൽ വേരിന് അടീലേക്ക് പോവാൻ ഭയങ്കര പാടായിരിക്കും അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യവും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നല്ലൊരു ചെടി നമുക്ക് നമ്മളുദ്ദേശിച്ച പോലെ കിട്ടുള്ളൂ